എസ് എൻ ഡി പി ഹോളിലും എസ് കെ എൽ സ്പേസിലും യവനിക ഓഡിറ്റോറിയത്തിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തൽസമയ സംഗീത പരിപാടികളൊക്കെ ഉണ്ടാവും കുറെ പ്രശസ്തരായ സംഗീതജ്ഞരുടെ വ്യത്യസ്ത തരത്തിലുള്ള സംഗീത പ്രോഗ്രാമുകൾ ഒക്കെ ഉണ്ടാകാറുണ്ട് കൂടുതലായിട്ടും ക്ലാസിക്കൽ സംഗീതം എന്നു വെച്ചാൽ കർണാടിക് സംഗീതമായിട്ടാണ് കൂടുതൽ ഉണ്ടാകുക കച്ചേരി പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ സംഭവങ്ങൾ ആയിരിക്കും അതിൽ തെ തട്ടിക്കയറ്റമുണ്ടാകും പിന്നെ ടിക്കറ്റ് നിരക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ എന്നു വെച്ചാൽ ആൾക്കാർ എത്ര ഫേമസ് ആണോ അതനുസരിച്ചിരിക്കും ടിക്കറ്റ് ഇപ്പോൾ എ ആർ റഹ്മാൻ്റെ ഷോ വെച്ചാലും അതേപോലെ വേറൊരു ഒരു സാധാ മ്യൂസിഷ്യൻ്റെ ഷോ വെച്ചാലും നമുക്ക് എന്തായാലും ടിക്കറ്റ് നിരക്ക് വ്യത്യാസമുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ എല്ലാവരും നല്ല നമ്മുക്ക് ഭയങ്കര ഒരു നല്ലൊരു സ്ഥലം നല്ലൊരു അമ്പിയൻസ് ആണവിടെ നല്ലൊരു സ്ഥലം തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലാണ് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ട് പാട്ടു കേൾക്കാം പാട്ടുകൾ ആസ്വദിക്കാം നമുക്ക് പുതിയ പുതിയ പല കലക്കാരന്മാരെ പരിചയപ്പെടാം നമുക്ക് പാട്ടിനെ കുറിച്ചിട്ട് ഒക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാം പിന്നെ വ്യത്യസ്തതരം സംഗീതങ്ങൾ ആസ്വദിക്കാം പലരും കാണാറുണ്ട് ചില സം ചില സംഗീതങ്ങൾ മാത്രം കേൾക്കും ക്ലാസിക്കൽ ആണെങ്കിൽ ക്ലാസിക്കൽ മാത്രം കേൾക്കും ചെലോർ ഇംഗ്ലീഷ് വെസ്റ്റേൺ ആണെങ്കിൽ വെസ്റ്റേൺ കേൾക്കും അങ്ങനത്തെ മാത്രം മറ്റുള്ളവരോട് മറ്റുള്ള മ്യൂസി മ്യൂസിക് ഐറ്റംസിനോട് ഒക്കെ എന്നു വെച്ചാൽ പാട്ടുകളോടൊക്കെ പുച്ഛം ആയിരിക്കും എന്നു വെച്ചാൽ ചെലോരെ ഞാൻ കണ്ടിട്ട് ഉണ്ട് എന്നു വെച്ചാൽ എനിക്ക് അറിയാവുന്ന ഒരു അങ്കിൾ ഉണ്ട് അങ്കിൾ എങ്ങനെയാണെന്നു വെച്ചാൽ പുള്ളി നല്ല രീതിയിൽ കർണാടിക്ക് ഒക്കെ കേൾക്കുന്ന ഒരാളാണ് കർണാടിക്ക് കച്ചേരികളൊക്കെ കേൾക്കുന്ന ആൾക്കാ ഞാൻ ഇംഗ്ലീഷ് പാട്ടുകളും കച്ചേരികളും ഒക്കെ കേൾക്കും പക്ഷേ ഞാൻ കച്ചേരി ഒക്കെ കേൾക്കുന്ന കണ്ട പുള്ളി ചോദിക്കും അല്ല അല്ല ഞാൻ കച്ചേരി അല്ല ഞാൻ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന കണ്ട പുള്ളി പറയും എന്തിനാ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുന്നത് കച്ചേരി കേട്ടാൽ പോരെയെന്നു ഒരു അഭിപ്രായത്തിൽ എല്ലാ പാട്ടുകൾക്കും അതിൻ്റേതായ ഭംഗിയും സൗന്ദര്യവും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഹോളുകളിലൊക്കെ നല്ല രസമായിട്ട് പാട്ടുകൾ ഒക്കെ ഉണ്ടാകും പലതരം പാട്ടുകൾ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ എന്നു വെച്ചാൽ പുതിയ തരത്തിലുള്ള ബാൻഡുകൾ റോക്ക് മ്യൂസിക്കുകൾ വേണമെങ്കിൽ റോക്ക് മ്യൂസിക്കുകൾ കേൾക്കാം പിന്നെ കച്ചേരി വേണ്ടവർക്ക് കച്ചേരി കേൾക്കാം പിന്നെ സാധാ മെലോഡിയസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സോങ്സോ ഓർ മലയാളം സോങ്സോ പണ്ടു കാലത്ത് മലയാളം പാട്ടുകൾ ഒക്കെ നമുക്ക് സുഖമായിട്ട് കേൾക്കാം നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ